ഇപ്പം കോഴിക്കോട് ജില്ലയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ വെച്ചാൽ പോലും ഒന്നാമത് ലിവിംഗ് സ്പേയ്സ് കൂടുതലുള്ള ആൾക്കാരാണ് അത്യാവശ്യം പൈസയൊക്കെ ഉള്ളവരാണ് വാഹനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉള്ളതു കൊണ്ട് അധികം വായ്പകൾ കിട്ടാൻ സാദ്ധ്യത കുറവാണ് പിന്നെ കിട്ടുന്നത് നമുക്ക് ലോൺ ഒക്കെ എടുത്താണെങ്കിൽ വീട് വെക്കാം ഇപ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെക്കടിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഒക്കെയാണ് കൂടുതലും വീടുവെക്കാൻ വേണ്ടിയിട്ട് മൈ ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട് അതുവഴി നടത്തുന്നത് പിന്നെ നമുക്ക് ഭവന ഓപ്പറേഷനുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ ഭവന വിപണി അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് ഒക്കെ എടുത്തിട്ട് അങ്ങനത്തെ പ്രവണതകളൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മൾക്ക് വരുന്നത് എന്താ പറയുക ഒരു റൂമിന് വാടക ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ നിൽക്കണമെങ്കിൽ ഒരു ദിവസം ആറുനൂറ് രൂപ അങ്ങനെയാണ് അപ്പം മാസം അയ്യായിരത്തിന് മേലെ എന്തായാലും ഇപ്പം പി ജി ഒക്കെ ആയിട്ട് നിന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ഒക്കെ ചിലവ് വരുന്നുണ്ട് ഇപ്പം അയ്യായിരം അയ്യായിരത്തിന് മേലെ ഒക്കെ വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ മിനിമം പിന്നെ നമ്മളിപ്പം അപ്പാർട്ട്മെന്റുകളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു ഫ്ലാറ്റിലിലൊക്കെ ആണെ ഒരു കോടി രൂപ തന്നെ അങ്ങനെയൊക്കെയാണ് വരിക അപ്പം അങ്ങനെയുള്ള അപ്പാർട്ട്മെൻന്റും ഹോം സ്റ്റേയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട്